ഞാൻ വായിച്ച ഒരു ബുക്കാണ് പ്രേം ചന്ദ്രൻ്റെ നിർമ്മല നിർമ്മല എന്ന ഒരു ബുക്ക് അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ വായിച്ചു നോക്കിയതാണ് അതില് എന്താ ഒന്ന് പറയാമെന്ന് വച്ചാല് ഒരു ചെറിയ കുട്ടി ഒരു മധ്യവയസ്ക്കനെ കല്ല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ കല്ല്യാണം കഴിച്ച് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്താ പറയുക കല്ല്യാണം കഴിച്ച ആൾക്ക് മക്കൾ ഉണ്ടായിരുന്നു ആ മക്കൾ ഇവളെ വെറുക്കുകയായിരുന്നു അവളെ ഇഷ്ടത്തിന് പോലും മുതിരാതെ ഇഷ്ടപ്പെട്ട ആളെ പോലും കല്ല്യാണം കഴിക്കാൻ വിടാതെ മറ്റൊരു മധ്യവയസ്കനായ ഒരാൾക്ക് കല്ല്യാണം കഴിച്ചു കൊടുക്കുകയും അതിലൂടെ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ആ ഭർത്താവിൻ്റെ മക്കള് അവളെ വെറുക്കയും അതിലൊരു മകൻ മകനും അവളും തമ്മില് അവിഹിതമാണെന്ന് പറഞ്ഞ് ഭർത്താവ് അടിയുണ്ടാക്കുകയും ആ മകൻ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരു മകൻ പണം കട്ട് ഓടിപ്പോവുകയും വരെ എത്തുന്ന ഒരു ഒരു അവസ്ഥയാണ് അതിലൂടെ പിന്നെ അവളുടെ അച്ഛൻ അത്രയ്ക്കും ധനികനായിരുന്നു ഒരു ഡോക്ടറുമായിട്ട് അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു അതിനുപോലും സമ്മതിക്കാതെ ഈ മധ്യവയസ്കന് കല്ല്യാണം കഴിച്ചു കൊടുക്കയും ആ ദുരിത പൂർണമായ അവസ്ഥയെ ഒരു ചിത്രീകരിക്കുന്ന ഒരു കഥയായിരുന്നു നിർമ്മല എന്ന് പറയുന്ന പ്രേമചന്ദിൻ്റെ നിർമ്മല എന്ന് പറയുന്ന ബുക്ക് ആ പുസ്തകം അതില് അവസാനം അവള് അവൻ മരിക്കുകയും മനംനൊന്ത് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവള് കടന്നു പോവുകയും ചെയ്യുകയായിരുന്നു ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് അവസ്ഥ ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം തന്നെയായിരുന്നു അത് അത് എല്ലാവരും വായിച്ചിരിക്കണം ഈ ചെറിയൊരു പ്രായത്തില് ഒരിക്കലും ഒരു സ്ത്രീയെ കല്ല്യാണം കഴിച്ചു കൊടുക്കുക അതും ഒരു മധ്യവയസ്കന് അത് വല്ലാത്ത ഒരു അവസ്ഥയാണ് നിർമ്മല എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് പ്രേം ചന്ദ് എഴുതിയ നിർമ്മല എന്നൊരു പുസ്തകമാണത് അത് എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അതാകുമ്പോൾ അവരുടെ സ്ത്രീകളുടെ അവസ്ഥ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാകും കല്ല്യാണം കഴിഞ്ഞു പോയാലും എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഒരു എന്താ പറയുക വിധ വിധവകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അതില് കൂടുതലായും ചിത്രീകരിക്കുന്നത്